എൻ്റെ അഭിമാനമായ നേട്ടമെന്ന് പറയുമ്പോൾ ഞാനിവിടെ ഒര് എനിക്ക് സ്വന്തമായിട്ടൊരു സ്വന്തം ഒരു ചെറിയൊരു വീടു കെട്ടി എല്ലാം എൻ്റെ സ്വന്തം കഷ്ടപ്പാടിലാണ് പിന്നെ എൻ്റെ മകളെ കല്യാണം കഴിച്ച് കൊടുത്ത് അല്ല അതിന് മുൻപേ വീട് കെട്ടി വീട്ടിൽ കൂടല് കഴിച്ച് സ്വന്തമായി ഉണ്ടാക്കിയ വീടാണ് ഞാൻ കുറച്ച് പഞ്ചായത്തിൻ്റെ സർക്കാറിൻ്റെ സഹായം ഉണ്ട് പിന്നെ ബാക്കി മുഴുവൻ എൻ്റെ ഏറ്റവും കഷ്ടപ്പാടാണ് പിന്നെ നേട്ടമെന്ന് പറയുമ്പോൾ എൻ്റെ മകളെ കല്യാണം കഴിച്ച് കൊടുത്ത് പിന്നെ ഒരു കുട്ടി ആയി അവര് സുഖമായി ജീവിക്കുന്നു അതൊക്കെയാണ് എൻ്റെ അഭിമാനവും സന്തോഷവുമായ എല്ലാ നേട്ടങ്ങളുമാണ് അതിലുള്ളത് ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ സ്വന്തമായി കഷ്ടപ്പെട്ട് ഒരു വീട് കെട്ടി അതാണ് എൻ്റെ നേട്ടം ആദ്യം ഉണ്ടായിരുന്ന ചെറിയൊരു വീടായിരുന്നു ചെറിയൊരു ഷെഡ് പോലത്തെ വീടായിരുന്നു അതിൽനിന്ന് ഒരു തരത്തില് രണ്ട് റൂമില് ഒര് ചെറിയൊരു വീട് കെട്ടി ഇപ്പോൾ ഞാൻ സുഖമായി ആ വീട്ടിലാണ് കഴിയുന്നത് ആ ഒരു അഭിമാനം എനിക്കെപ്പോഴും പറയാനുള്ള പറയാൻ പറ്റുന്ന ഒരു അഭിമാനം ആണ്